കൊച്ചിൻ ബാക്കറി ആണല്ലോ

രണ്ട് കിലോ കേക്ക് ആ ഏതാണ് ഏതായിരുന്നു വേണ്ടത് പ്ലം കേക്കൊണ്ട് ബ്ലാക്ക് ഫോറെസ്റ്റൊണ്ട് വൈറ്റ് ഫോറെസ്റ്റൊണ്ട് റെഡൊണ്ട് പിന്നെ പൈനാപ്പിൾ കേക്കൊണ്ട് വൈ വൈറ്റ് ഫോറെസ്റ്റിന് വൺ കെ ജിക്ക് തൊള്ളായിരത്തി എൺപത് രൂപ ബ്ലാ റെഡിനാണെങ്കിൽ ആയിരത്തി ഇരുനൂറ്റി അൻപത് ആകും ബ്ലായ്ക്കിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആകും വൺ കെ ജിയാണെ ഞാൻ പറഞ്ഞത് പിന്നെ പ്ലം പ്ലം കേക്കാണെങ്കിൽ എഴുനൂറ്റി അൻപത് രൂപ പ്ലം വേണ്ട ഓക്കെ ഓക്കെ ബ്ലാ റെഡ് ഫോറെസ്റ്റ് എടുത്താലോ ആയിരത്തി ഇരുനൂറ്റി അൻപത് ഉള്ളൂ മാഡം വൺ കെ ജി ഫ്രഷാണ് അതിൻ്റെ ഉപയോഗിക്കുന്ന ക്രീമുകൾ എല്ലാം ഫ്രഷായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതുകൊണ്ടാണ് റേറ്റ് കൂടിയിരിക്കുന്നത് ഇനി മുന്നോട്ട് റേറ്റ് കൂടുകയെ ഉള്ളൂ ബ്ലായ്ക്ക് ഫോറെസ്റ്റാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാന്നൂറ്റി അൻപതാണ് ഇപ്പോൾ വൺ കെ ജി ആ ബ്ലാക്ക് വേണോ വൈറ്റ് വേണോ റെഡ് വേണോ ആ റെഡ് ഫോറെസ്റ്റ്

ഒന്നര ഒരു അൽപ്പം മുന്നെ ഓൾറെഡി രണ്ട് കേക്കിന് ഓർഡറ് വന്നിട്ടുണ്ടല്ലോ മാഡം അതുകൊണ്ട് ഒരു അൽപ്പം മുന്നേ ഒരു ഒന്നേമുക്കാൽ ഒന്ന് അൻപത് ഒക്കെ ആകുമ്പോഴ്ത്തേന് എത്തിച്ചാൽ മതിയോ എന്നാൽ ഞങ്ങൾ കൊണ്ട് തന്നേക്കാം ഏത് ലൊ ആ ലൊ

ആ ഞങ്ങൾ എ സ്പോട്ടിലെത്തിക്കാം പക്ഷേ ലൊക്കേഷൻ ഒന്ന് സെന്റ് ചെയ്തേക്കാവോ ആ പിന്നെ കേക്കേൽ എന്തെങ്കിലും കേക്കേൽ എന്തെങ്കിലും എ ആ എഴുതാൻ ആ ഒരു വാട്സാപ്പിൽ ആ വാട്സപ്പിലേക്ക് ഒന്നിട്ട് ഇതാണ് നമ്പറെ ഈ നമ്പറിലേക്ക് തന്നെ ഒന്ന് സെൻഡ് ചെയ്താൽ മതി വാട്സാപ്പിലേക്ക് അപ്പം ഉച്ചയാകുമ്പോഴത്തേനും കേക്ക് വേണം അല്ലെ അൽപ്പം ഒരു ആ റെഡ് ഫോറസ്റ്റല്ലെ മാഡം പറഞ്ഞത് ആ റ്റു കെ ജി ആ ഓക്കെ അത് ഞങ്ങൾ വേണ്ട ഡെലിവെറിടെ സമയത്ത് പോയി ചെയ്താൽ മതി അന്നേരത്തെ സമയത്ത് ഡെലിവറി വന്ന് കഴിയുമ്പോൾ സെൻഡ് ചെയ്താൽ മതി നിങ്ങൾ സമയം പൈസ തന്നാൽ മതി ഓക്കെ ഓക്കെ